ഹലോ ഞാനെൻ്റെ സിലിണ്ടറിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരുന്നു ഇതുവരെയായിട്ട് എൻ്റെ സിലിണ്ടർ എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നലെ ഓർഡർ ചെയ്തതായിരുന്നു ഈ സമയമായിട്ടും വന്നിട്ടില്ല എൻ്റെ ബുക്കിംഗ് നമ്പർ രണ്ട് രണ്ട് നാല് അഞ്ച് ആറ് മൂന്ന് എട്ട് ഒമ്പത് പൂജ്യം നാല് രണ്ട് ഒന്നാണ് എൻ്റെ മൊബൈൽ നമ്പര് ഇരുപത്തിയഞ്ച് അൻപത്തിയെട്ട് മുപ്പത്തിയെട്ട് നാല്പ്പത്തിയെട്ട് അൻപത്തിരണ്ടാണ് ഇന്ന് വരുമെന്നാണ് പറഞ്ഞത് ഇതുവരെയും അത് എത്തിയിട്ടില്ല ഇത് ഞങ്ങളുടെ സ്ഥലം രാമനാട്ടുകരയാണ് ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞത് ഒന്നും കിട്ടിയിട്ടില്ല